നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സമൂഹ മാധ്യങ്ങളുടെ കടന്നുവരവ് നമുക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് നേരത്തേയൊക്കെ നമുക്ക് മാധ്യമങ്ങളെന്നു പറയുമ്പോൾ പേപ്പറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആ ഒരു കാലഘട്ടവും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പുതിയ പുതിയ ടെക്നോളജികൾ രംഗത്തുവന്നു മൊബൈൽ ഫോണ് റ്റീ വി മാധ്യമങ്ങൾ അങ്ങനെ ഒത്തിരിയേറെ മാധ്യമങ്ങൾ നമുക്ക് കടന്നുവന്നു അതിലൂടെ നമക്കൊത്തിരിയേറെ ഗുണകരമായ മാറ്റങ്ങൾ വന്നു അതായത് നമുക്ക് എന്ത് സംഭവങ്ങൾ എവിടെ നടന്നാലും നമുക്കപ്പോഴ് അപ്പോൾ പിന്നെ അത് ലൈവായിട്ടുതന്നെ എന്നു പറഞ്ഞപോലെ നമുക്കറിയാൻ പറ്റും പിന്നെ നമുക്കത് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും പിന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ടു നീങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ആയി സമൂഹ മാധ്യങ്ങളുടെ കടന്നുവരവാണ് അത് അതിൽ പ്രധാനം അത് എല്ലാവിധ ടെക്നോളജിയും കമ്പ്യൂട്ടറ് സിസ്റ്റം നിലവിൽ വന്നു നമ്മൾക്ക് പിന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവനും അത് നമ്മൾ പിന്നെ ഡേറ്റ ആയിട്ട് സൂക്ഷിക്കാനും എല്ലാവിധ സംവിധാനങ്ങളും പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ നമുക്ക് അവൈലബിളായി അങ്ങനെ ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൈവരിച്ചു നമുക്ക് അത് ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയോജനകരമായി എന്നു തന്നെ നിസംശയം പറയാൻ പറ്റും അത് നമുക്ക് എന്തു കാര്യങ്ങളാണെന്നു പറഞ്ഞാലും കമ്പ്യൂട്ടറിൽ എത്ര വർഷം പഴക്കമുള്ളതാണെന്നു പറഞ്ഞാലും പിന്നെ അതിൻ്റെ അത് അടിച്ചു കൊടുത്താൽ നമുക്കത് കറക്റ്റ് പിന്നെ ഇതായിട്ടുതന്നെ കിട്ടും ഒരു കാരണവശാലും അത് പിന്നെ അത് മാഞ്ഞ് ഡിലീറ്റായി പോവുന്നില്ല മറിച്ച് നമ്മളല്ലാതെ ഒര് ബുക്ക് അതിൽ എഴുതി വെച്ചിരുന്നാൽ അത് കുറേക്കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ബുക്ക് നഷ്ടപ്പെട്ടുപോവും അല്ലെങ്കിൽ അതിൻ്റെ ആ അല്ലെങ്കിൽ അത് ചിതലെടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ബുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്വകാര്യത അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അത് നഷ്ടപ്പെട്ടു പോകുകയാണ് ആ സമയം ഈ ഇതിൽ നമ്മളത് ചെയ്തു വെക്കുമ്പോൾ അത് ഏതു സമയത്തും എപ്പോഴും നമുക്കതേപടി നമ്മളത് ചെയ്തു വെച്ചിരിക്കുന്ന പ്രകാരമാണോ അതേപടി തന്നെ നമുക്കത് കിട്ടും അതുപോലെതന്നെ ഫോണ് ഫോണിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ അന്യരാജ്യത്ത് ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മൂണിക്കേറ്റ് ചെയ്യാനും നിമിഷനേരം കൊണ്ട് അത് വീഡിയോ കോള് വഴിയാകാം അല്ലെങ്കിൽ വോയിസ് കോള് വഴിയാകാം എപ്പോഴും നമുക്ക് പിന്നെ അവരുമായിട്ട് ഏതു സമയത്തും ഏതു സമയവും നമുക്ക് പിന്നെ ബന്ധപ്പെടാനുള്ള സൗകര്യമാണ് അങ്ങനെ അതിലൂടെ ഒരുക്കി വന്നിരിക്കുന്നത് അത് ഒരു വലിയ മാറ്റം തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളാണ് വരുത്താൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് ഫോണിൽക്കൂടെയോ കമ്പ്യൂട്ടറിൽക്കൂടെയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഗുണകരമായി തന്നെയാണ് വന്നിരിക്കുന്നത്